പാലക്കാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നതാണ് കൊല്ലംകോട് അതുപോലെ നെല്ലിയാമ്പതി ഈ നെല്ലിയാമ്പതി എൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൊല്ലംകോട് കുറച്ച് കുറച്ച് ദൂരമുണ്ട് അല്ലാണ്ട് അത്രയും ഒരുപാട് ദൂരമൊന്നും ഇല്ല അടുത്ത് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്നു പറയുമ്പോൾ നെല്ലിയാമ്പതിയെന്നു പറയുന്ന നമ്മുടെ മിനി ഊട്ടിയെന്നൊക്കെ പറയണ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി നല്ല തണുപ്പും അത്യാവശ്യം തോട്ടങ്ങളും കാണാൻ ഒരുപാട് നല്ല വെള്ളച്ചാട്ടങ്ങളും അങ്ങനത്തെയുള്ള ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളവിടെ കാണാനുണ്ട് അവിടെ മറ്റേ ഓഫ്റോഡ് അങ്ങനത്തെ പരിപാടിയുണ്ട് പിന്നെയെന്താണ് അവിടെ ചായത്തോട്ടങ്ങൾ അവിടെ പോയിക്കഴിഞ്ഞാൽ സ്റ്റേ അടിക്കാൻ പറ്റും റിസോർട്ടും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഓഫ്റോഡുള്ള മറ്റേ ജീപ്പ് അങ്ങനെ ജീപ്പിൽ പോകാം പിന്നെ അല്ലങ്കിൽ സ്വന്തം വണ്ടിയുണ്ടെങ്കിൽ അങ്ങനെ പോകാം അങ്ങനത്തെയുണ്ട് പിന്നെ അവിടെ ഈ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അങ്ങനെ നമുക്കെന്താ പറയാ സത്യം പറഞ്ഞാൽ നല്ലൊരടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ നെല്ലിയാമ്പതിയെന്നു പറയണത് അത്യാവശ്യം എല്ലാ സമയങ്ങളിലും അവിടെ ആൾക്കാർ അവിടെ കാണാനും ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ടവിടെ അപ്പോൾ അതൊരു നല്ല സ്പോട്ട് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ കൊല്ലംകോട് എന്നു പറയണത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം പോലെയാണ് അപ്പോൾ ലോക പൈതൃകയിൽ ലോകപൈതൃക പട്ടികയിൽ തന്നെ സ്ഥലം പിടിച്ചൊരു സ്ഥലമാണ് നമ്മുടെ കൊല്ലംകോട് അവിടെ ഗ്രാമപ്രദേശമെന്നു പറഞ്ഞാൽ നല്ല പക്കാ ഗ്രാമപ്രദേശമാണ് ഇഷ്ടംപോലെ ആളുകൾ കാണാൻ വരുന്നുണ്ട് നല്ല പഴമ പഴമ എങ്ങനെയാണോ അങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് നമുക്കതിനെ കണക്കാക്കാം